ഇത് ന്യൂ ഫാം റെസ്റ്റോറൻറ്റല്ലേ എനിക്കൊരു ഇരുപത് പേരുണ്ട് ഞങ്ങളുടെ ഫാമിലി മെംമ്പേഴ്സ് ആണ് അപ്പോരു ഗെറ്റ് ടുഗതറ് പോലെ വീട്ടിൽ കൂടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങാൻ ഒരു സിനിമയൊക്കെ കാണാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടൊരു ഇരുപത് പേർക്ക് നമുക്ക് ഒരേ സമയം ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റൊ അപ്പോൾ രാത്രി എത്ര മണിക്ക് അവിടെ വന്നിട്ടിണ്ടെങ്കിലാണ് നമുക്കൊരു അറേഞ്ച് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടന്നൊരു എട്ട് മണി ആ എട്ട് മണിക്ക് വരാന്നു വെച്ചാൽ കാരണം പതിനൊന്ന് മണിക്കുള്ള ഒരു ഒൻപത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഉള്ള ഷേയ ഷോയ്ക്ക് പോവാം സിനിമയ്ക്ക് അപ്പോൾ പിന്നെ വരുവാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഒരു ടൈമിൽ വരുവാണെങ്കിൽ നിങ്ങൾ എത്ര പേർക്കുള്ള ഫുഡ് അറേഞ്ച്മെൻസ് അതായത് നമുക്ക് ഇരിക്കേണ്ട സൗകര്യമാണ് എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒന്ന് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുവോ പിന്നെ നമുക്കൊരു എല്ലാവരും നാല് നാല് പേര് വെച്ച് കാറിലായിരിക്കും വരുക അപ്പം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടീട്ടായിരുന്നു അപ്പം അതിന്റെ കുറിച്ചൊന്ന് അന്വേഷിക്കുവാണേൽ നമുക്ക് അതിനനുസരിച്ച് വന്നാൽ മതിയല്ലോ